എനിക്ക് ഒരു സഹോദരി ആണ് ഉള്ളത് പിന്നെ ഒരു സഹോദരൻ ഉണ്ട് സഹോദരൻ എന്നെപ്പോലെയല്ല അവൻ അച്ഛനെപ്പോലെ ആണ് സഹോദരി അച്ഛൻ്റെ പ്രകൃതം ഒക്കെ അച്ഛനെപ്പോലെ ആണെങ്കിലും കാഴ്ചയ്ക്ക് അവടിവിടൊക്കെ എന്നെപ്പോലെ തോന്നും അവള് കുറച്ച് തടിച്ചിരിക്കുന്നു ഞാൻ കുറച്ച് മെലിഞ്ഞിരിക്കുന്നു അതാണ് ഞങ്ങള് തമ്മിലുള്ള വ്യത്യാസം പിന്നെ അവൾക്ക് കുറച്ചു കൂടുതല് മുടി ഉണ്ട് എനിക്ക് കുറച്ച് മുടി കുറവാണ് പിന്നെയെന്ന് വെച്ചാൽ ഞങ്ങളിലേറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്റേയും അവളുടേയും അമ്മയുടേയും സൗണ്ട് ഒരേപോലെയാണ് ഞങ്ങളിപ്പോൾ ഫോണിലെടുത്തു സംസാരിക്കുകയാണെങ്കില് അമ്മയാണോ മോളാണോ സംസാരിക്കണേന്ന് അറിയത്തില്ല എൻ്റമ്മയും അവളും ഞാനുമൊക്കെ സംസാരിക്കുന്നത് ഒരേ സൗണ്ട് ആണ് ഞങ്ങൾക്ക് വേറെ കുറച്ച് ദൂരെ നിന്നാണ് ഞങ്ങള് സംസാരിക്കുന്നതെങ്കില് ഞങ്ങളിൽ ആരാണ് സംസാരിച്ചതെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല ഫോണെടുത്ത് സംസാരിക്കുകയാണെങ്കിൽ എളുപ്പമാണ് കാഴ്ചയ്ക്ക് അവൾക്ക് തടി ഇല്ലെങ്കിൽ അവളെന്നെപ്പോലെത്തന്നെ ആണ് കാണാൻ തടി ഉള്ളതുകൊണ്ട് അവൾക്ക് കുറച്ചൊരു വ്യത്യാസമുണ്ട് അതാണ് ഞങ്ങളെ തമ്മില് വേർതിരിക്കുന്ന കാര്യങ്ങള് ബാക്കി എല്ലാം കൊണ്ടും ഞങ്ങള് രണ്ടുപേരും ഒരേപോലെ ആണ്